ഹലോ നമസ്കാരം ഞാൻ എൻ്റെ പേര് തോമസ് എന്നാണ് ഞാൻ ഇതിന് മുമ്പിട്ട് നിങ്ങളുടെ അവിടെ എൻ്റെ സേവിങ്സ് ഉണ്ടായിരുന്നു എൻ്റെ റിട്ടയർമെൻറ്റ് എൻ്റെ കാലാവധി കഴിഞ്ഞു ഞാൻ എൻ്റെ പഠനത്തിൽനിന്ന് ഞാൻ എൻ്റെ പഠിപ്പിക്കലിൽനിന്ന് ഞാൻ എൻ്റെ ഉദ്യോഗത്തിൽനിന്ന് ഞാൻ ഇറങ്ങി അതുകൊണ്ട് എനിക്ക് ആ സേവിങ്സ് റിട്ടയർമെൻറ്റ് സേവിങ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പുതുക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഞാൻ തീരുമാനിക്കുന്നത് ഞാനൊരു മാസം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസോളം ഞാൻ ഒരു അയ്യായിരം രൂപ അടങ്ങുന്ന ഒരു തുക നിങ്ങളിലേക്ക് സേവിംഗ്സ് ആയിട്ട് ഇടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഏതെങ്കിലും സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു കാരണം എനിക്ക് മുമ്പോട്ട് എൻ്റെ എൻ്റെ ഒരു ഉന്നമനത്തിനായിട്ട് എൻ്റെ നല്ലൊരു സ്റ്റേബിൾ ആയിട്ട് എൻ്റെ ഒരു സ്റ്റാൻഡേഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി നിങ്ങളുടെ ഒരു ആ ഒരു സ്കീമ് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നിങ്ങൾ എത്രയും വേഗം ഞാൻ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളത് പറയാൻ ആഗ്രഹിക്കും